ഹലോ ഇത് സോലിഹാണ് സംസാരിക്കുന്നത് മലപ്പുറത്ത് നിന്നാണ് ആമസോൺ കമ്പനിയല്ലേ ഞങ്ങൾ ഇവിടെ നിന്നും ഞങ്ങളുടെ ആവശ്യത്തിനായി ഒരു പാൻറ് ഓർഡർ ചെയ്തിരുന്നു സാധനം കുറച്ച് ലേറ്റായിട്ടാണെങ്കിലും കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് വെബ്സൈറ്റിൽ വിവരിച്ചതുപോലെയുള്ള അതിൻ്റെ സവിശേഷതകളൊന്നും കാണുന്നില്ല മാത്രമല്ല അതിന് ചെറിയ പോറലുകളും സംഭവിച്ചിട്ടുണ്ട് വെബ്സൈറ്റിൽ കൊടുത്തത് പോലെ അത്രമേൽ അത് പെർഫെക്റ്റായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല കാരണം അതിൽ കൊടുത്ത അത്ര വലിപ്പമോ അല്ലെങ്കിൽ വീതിയോ ഒന്നും അത് ശരിക്ക് അതിന് കാണിക്കുന്നില്ല അതുപോലെ തന്നെ അതിൻ്റെ ക്ലോത്തും വളരെ നുരുമ്പിയതായി തോന്നിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ഷിപ്പിംഗ് പോരായ്മകളും അതിൽ മറ്റൊരു ഘടകമാണ് ഇങ്ങനെ എല്ലാം വെച്ചുകൊണ്ട് ആ ഒരു പാൻറ് ഇനി ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥയിലല്ല അതുകൊണ്ട് തന്നെ അത് തിരിച്ച് വാങ്ങി അത് ഒന്നുകിൽ റീഫണ്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിന് പകരം ഒരു പുതിയ പാൻറ് നൽകുകയോ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യൂ